നമ്മൾ ഈ കേരളത്തിൽ എന്താ പറയുക വയനാടെന്നു പറയുന്ന സ്ഥലത്തായതുകൊണ്ട് ഈ വള്ളം കളിയൊന്നും നമ്മളങ്ങനെ അധികം കണ്ടിട്ടില്ല പിന്നെ ഈ പുത്തരിയെന്നു പറയുന്ന സാധനങ്ങൾ എന്താ പറയുക നമ്മൾ അങ്ങനെ അധികം കേൾക്കാത്തൊരു ഇതാണ് പിന്നെ പടയണിയെന്നു പറയുന്നത് എന്താ പറയുക എന്തോ ഒരു ഗാന ശകലം അങ്ങനെ എന്തൊ പടയണിയെന്നു പറയണത് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ആറന്മുള വള്ളം കളിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ടി വികളിലൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പോൾ വള്ളം കളിയെക്കുറിച്ച് നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയത്തില്ല എന്താ പറയുക അവർ വെള്ളം കളിക്കുന്നത് തന്നെ ഈ വള്ളം കളിയെന്നു പറയുമ്പോൾ തന്നെ എന്താ പറയുക അതിനകത്തൊരു പാട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് എന്താ പറയുക താളത്തിനൊത്ത് തുഴയുന്നതിനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ കൂടുതൽ എന്താ പറയുക പാഠപുസ്തകത്തിലൊക്കെ ഞാനിതിനെപ്പറ്റി പഠിച്ചിട്ടേ ഉള്ളു അല്ലാണ്ട് വ്യക്തമായ രീതിയിൽ എനിക്കതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയത്തില്ല കേരളത്തിൽ ഈ എന്താ പറയുക ഈ എന്താ പറയുക ആലപ്പുഴ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് ഈ വള്ളം കളിയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അവിടെയാണീ എന്താ പറയുക ഇത്തരത്തിലുള്ള എന്താ പറയുക ആചാരങ്ങളും പാരമ്പര്യമായിട്ട് ഉള്ള ആചാരങ്ങളൊക്കെ നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ എനിക്ക് എന്താ പറയുക ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിവുള്ളു അങ്ങനെയൊക്കെയാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ